ലോക്ക്ഡൗൺ കാലത്ത് നമുക്കങ്ങനെ പാചകം പരീക്ഷിക്കാനായിട്ട് വലിയ രീതിയിലുള്ള സാധനങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ലോക്ക്ഡൗൺ കാലത്ത് അപ്പോൾ എല്ലാ കടകളും അടച്ചു പൂട്ടിയ ഒരവസ്ഥയിൽ ആയിരുന്നല്ലോ കൂടുതലായിട്ടും നമ്മുടെ സ്ഥലങ്ങളിൽ കിട്ടുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചക്ക മാങ്ങ അങ്ങനത്തെ വാഴ വാഴക്കുല അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും കിട്ടിക്കൊണ്ടിരുന്നത് പിന്നെ കപ്ലങ്ങ അങ്ങനത്തെ സാധനങ്ങൾ അപ്പോൾ അതും കൊണ്ട് നമ്മൾ എന്തൊക്കെയാണോ വയ്ക്കുന്നത് അതൊക്കെ തന്നെയാണ് പരീക്ഷിച്ചു നോക്കിയത് ഇപ്പോൾ ചക്കയും കൊണ്ട് ചക്ക അട ഉണ്ടാക്കാം ഇപ്പോൾ പഴുത്ത ചക്ക എന്ന് പറഞ്ഞാൽ ചക്ക അട അതായത് ചക്ക നല്ല പഴുത്ത ചക്കയെടുത്തിട്ട് നമ്മൾ വരട്ടി വെല്ലം ഉണ്ടെങ്കിൽ വെല്ലം ചേർക്കും ഇല്ലെങ്കിൽ പഞ്ചസാര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് വേണം നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനത്തെ ചക്ക കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കും പിന്നെ കൂടുതലായിട്ടും ചക്കപ്പുഴുക്ക് പിന്നെ ചിക്കൻ കറി അങ്ങനെ വയ്ക്കാൻ നമുക്ക് പറ്റില്ല കാരണം എന്താണ് വെച്ചുകഴിഞ്ഞാൽ എല്ലാ ലോക്ക്ഡൌൺ ആണ് അപ്പോൾ ചിക്കൻ കറി എന്ന് പറഞ്ഞൊരു സംഭവമേ ഉണ്ടായിരുന്നില്ല പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ കപ്ലങ്ങ കൊണ്ടുള്ള തോരൻ അങ്ങനത്തെ പല രീതിയിലുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്